ഹലോ രേഷ്മ മാം അല്ലെ ആ മാം ഞാൻ ഒരു തേർഡ് ഇയർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ് അപ്പോൾ ആ ഐ എസ് ആർ ഒയിലോട്ട് ഞാൻ വർക്ക് ചെയ്താലോ അതിലോട്ട് പോവണമെന്ന് ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അവിടുത്തെ ഇന്റേൺഷിപ്പും കാര്യങ്ങളും ചോദിക്കാൻ വിളിച്ചതാണ് മാമിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒന്നു ആ പറഞ്ഞു തന്നാൽ ഞാൻ ഇവിടെ പാമ്പ് എവിടെ ലക്കടി നെഹ്റു കോളേജ് അതെ അതെ പാലക്കാട് ആണ്

ആ കുഴപ്പം ഇല്ല ആ ഒരു നൈൻ പോയിന്റ് ത്രീ കുഴപ്പം ഇല്ല മാം ഇല്ല ഇല്ല

ഓക്കെ ഓക്കെ ഓക്കെ

ആ മാം അപ്പോൾ എലിജിബിലിറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കിൻ്റെ ബേസ് ആണോ

ഓക്കെ ഓക്കെ ആ അതെ അല്ലെ ആ ഞങ്ങൾ

ആ ആ ആ മറ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചു ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും

ആ എന്തായാലും ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ആ ആ ആ ഓക്കെ ഓക്കെ ആ ആ

ആ ആ ഓക്കെ ഓക്കെ മാം ആ ആ ഞാൻ ഒരുപാട് പോയി ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന ഒരു ടീച്ചർ വഴി ആണ് മാമിൻ്റ നമ്പർ മാമിനെ കോൺടാക്ട് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞത് അപ്പോൾ ആ മാം അവിടെ വർക്ക് ചെയ്യുകയാണോ ആ മാം എവിടെയാണ് പഠിച്ചത് ആ ആ ആ ഓ അപ്പോൾ മാമും ഇതുപോലെത്തന്നെ കാര്യങ്ങൾ ആണ് അല്ലെ അതെ ആ ആ ആ ആ ആ അപ്പോൾ ആ ഞാനും ആ ഒരുപാട് എനിക്ക് കുറച്ച് ഐ എസ് ആർ ഒയിൽ കയറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ

ആ എന്നാലും ആ മാമിൻ്റ നമ്പർ ഉണ്ട് എന്തായാലും ആ മാം ഫ്രീ ആയതുകൊണ്ട് പറഞ്ഞു തന്നതുകൊണ്ട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് കാരണം നമ്മൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ഒരാൾ പറഞ്ഞു തരണം നമുക്ക് ശരി ആ ഓക്കെ ഓക്കെ ആ ആ വിളിക്കാം ഓക്കെ താങ്ക് യു